ഗ്രാമ പ്രദേശങ്ങളിലെ പ്രാദേശിക ആസൂത്രണ വികസനം അതുപോലെ ഭരണ നിര്വ്വഹണം എന്നിവയ്ക്കൊക്കെയായി രൂപീകരിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അതുപോലെ നഗരപ്രദേശങ്ങളിലെ പ്രാദേശികാസൂത്രണം വികസനം ഭരണം എന്നിവയ്ക്കായി രൂപികരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിന്നെ മുനിസിപ്പാലിറ്റി എന്നും പറയും പിന്നെ പഞ്ചായത്തിന് ഞങ്ങൾക്ക് തൊഴിലുറപ്പുകാരൊക്കെ വന്നു ഞങ്ങളെ വീട്ടിലെ തൊടിയിലൊക്കെ പലതും വെച്ച് തരാറുണ്ട് അതുപോലെ തന്നെ കാടുകള് ഒക്കെ വെട്ടി തോട്ടം വൃത്തിയാക്കി തരാറുമുണ്ട് അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾ തൊയിലുറപ്പിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തു നിന്നു ആളുകള് അവരെ വിട്ടിട്ട് ചെയ്തു തരാറാണ് പതിവ് അതുപോലെ തന്നെ ഞങ്ങള്ക്ക് കൃഷിക്കാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തു നിന്നു കിട്ടാറുണ്ട് വളമായിട്ടും അതേപോലെ വാഴ തൈയ് വായ കന്ന് പിന്നെ അതേപോലെ പല പല തൈകളും ഞങ്ങൾക്ക് പഞ്ചായത്തു നിന്ന് കിട്ടി കുറ്റി കുരുമുളക് പിന്നെ പിന്നെന്താ മാവിന്റെ തൈയ് പ്ലാവിന്റെ തൈ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തു നിന്നു കിട്ടാറുണ്ട് പിന്നെ വീട്ടിനു റിപ്പയറിങ്ങിനു ഒക്കെ ആവശ്യമായാൽ അത് എഴുതി കൊടുക്കാറുണ്ട് അങ്ങനെ കിട്ടും പിന്നെ പുതിയ വീട് വെക്കാൻ ഇല്ലാത്തവര്ക്ക് അങ്ങനെ കിട്ടലുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തു നിന്ന് കിട്ടണത് തന്നെയാണ്